ഒരു ബൈക്ക് യാത്രികൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കാറുണ്ട് ഇന്ത്യയിൽ ബൈക്കിംഗ് എന്നു പറയുമ്പോൾ ഒരു മികച്ച സാഹസികത തന്നെയാണ് സാഹസികമായി ചെയ്യേണ്ട കാര്യമാണെന്നും പറയാം എന്നാൽ വളരെ ലഘുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണെന്നും പറയാം നിരവധി സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭംഗി വലിയ പർവ്വതനിരകൾ മുതൽ മനോഹരമായ ബീച്ചുകൾ വരെ ഇന്ത്യയിൽ നിരവധി വ്യത്യസ്തമായ മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും എല്ലാം ബൈക്ക് ഓടിക്കാനും രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ആളുകളെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവരുടെ പരിതസ്ഥിതിയെല്ലാം കണ്ടു മനസ്സിലാക്കി അവരെ സഹായിക്കണമെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാനും സാധിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഇന്ത്യയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സംസ്കാരത്തേയും ചരിത്രത്തേയും കുറിച്ച് പഠിക്കാൻ വരെ സാധിക്കും പുതിയ സാംസ്കാരികമായും ചരിത്രപരമായും സ്ഥലങ്ങളേയും ക്ഷേത്രങ്ങൾ മ്യൂസിയങ്ങൾ അവയെല്ലാം സന്ദർശിക്കാനും പുതിയതരം ഭക്ഷണ പാനീയങ്ങൾ പരീക്ഷിക്കാനും എല്ലാം സാധിക്കുന്നു കൂടാതെ പുതിയ ആൾക്കാരെ കാണാനും അവരുടെ കഥകൾ കേൾക്കാനും അവരെ അറിയാനും എല്ലാം സഹായിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ബൈക്ക് യാത്ര എന്നു പറയുമ്പോൾ ബൈക്കിംഗ് എന്നു പറയുമ്പോൾ ഇന്ത്യയിലെ നിരവധി ആളുകളെ വളരെ സൗഹൃദപരമായി സ്വാഗതം ചെയ്യുന്നവരാണ് പലരും ഇന്ത്യയിൽ ബൈക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം പക്ഷെ അത് വളരെ ലഘുവായി നമുക്ക് കണ്ടില്ല എന്നു നടിക്കാൻ സാധിക്കും എന്നു പറയുമ്പോൾ വെല്ലുവിളുകൾ കാണും പക്ഷെ അത് തരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത്ഭുതകരമായ കാര്യങ്ങൾ കാണാനും ആവേശകരമായ അനുഭവങ്ങൾ നേടാനും കഴിയും ഇന്ത്യ വലുതും വളരെ ഭംഗിയുമുള്ളൊരു രാജ്യമാണ് അത് അനുഭവിച്ച് അതിൻ്റെ അനുഭൂതി അറിയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണ് ബൈക്കിംഗ് സ്വന്തം വേഗതയിൽ പോകാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം നിർത്താനും കഴിയും അതായത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും അതാണ് ഞാൻ ബൈക്കിംഗ് ഇത്രയും ഇഷ്ടപ്പെടുന്നത് കാരണം ഇത് രാജ്യം കാണാനുള്ള രസകരവും അതിലുപരി ആവേശകരവുമായ ഒരു മാർഗ്ഗമാണ് ഇന്ത്യയിൽ ബൈക്ക് ബൈക്കിംഗ് നടത്തുമ്പോൾ ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് പ്രകൃത്രി ദൃശ്യങ്ങൾ തന്നെയാണ് അതായത് പ്രകൃതിയെ കാണുക അതുതന്നെയാണ് ഇന്ത്യയിൽ ബൈക്കിംഗ് നടത്തുമ്പോൾ മറ്റൊരു മികച്ച കാര്യം അവിടുത്തെ ആളുകളാണ് പിന്നെ ഇന്ത്യയിൽ ബൈക്കിംഗ് ഒരു മികച്ച സാഹസികത തന്നെയാണെന്ന് പറയാം നിങ്ങൾക്ക് ബൈക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്ത്യയിൽ ഇത് പരീക്ഷിച്ചു നോക്കണം സാഹസികത കാണും എന്നാലും അതിനെ മറികടന്ന് പോകുമ്പോൾ അതു വളരെ ലഘുവായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയായിട്ട് നമുക്ക് തോന്നും